വൈദ്യുതിയുടെ ചില അപകടങ്ങളെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മള് നമ്മൂടെ വീട്ടിലെപ്പോഴും നമ്മൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്കെപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വേണ്ടൊരു കാര്യമാണ് വെള്ളം ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് മോട്ടറാണെങ്കിൽ മോട്ടറിൽ നിന്ന് വെള്ളമടിക്കണം അപ്പോൾ ഈ ചിലവരൊക്കെ ഈ കൈയില് വെള്ളമൊക്കെയുള്ള ടൈമിലും അല്ലെങ്കിൽ ഇടി വെട്ടുമ്പോഴും മഴയുള്ള നല്ല ഇടിയൊക്കെയായുള്ള ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ അങ്ങനെ മോട്ടറിടാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ കൈയില് വെള്ളം ഉള്ളപ്പോൾ മോട്ടറിടാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോൾ അത് ഭയങ്കര അപകടകരമാണ് കാരണം അതിൽ നിന്ന് ഷോക്കടിക്കാനുള്ള നല്ല ഒര് ചാൻസുണ്ട് അത് നല്ലൊര് നല്ല രീതിയിലപകടമാണ് അതുപോലെതന്നെ അതൊഴിവാക്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മഴയും ഇടിമിന്നുമ്പോഴൊക്കെ നമ്മളത് ഒന്നുകിൽ നമ്മൾക്ക് പിന്നൊരിക്കൽ അല്ലെങ്കിൽ മഴ കുറയുമ്പോൾ അല്ലെങ്കിൽ ഇടി കുറയുമ്പോൾ നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ കൈയ്യില് വെള്ളം ഇല്ലാത്തപ്പോഴോ വെള്ളം തുടച്ചിട്ട് നോർമലായിട്ട് നമ്മള് വെള്ളമടിക്കുക അങ്ങനെയെന്തെങ്കിലുമക്കെ ചെയ്യാം അതാണിതിൽ ഒഴിവാക്കാൻ പറ്റിയ രീതി അപ്പോം നമ്മള് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല ശ്രദ്ധയുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല ഉണ്ടാവില്ല